ഞാൻ ലൈവായിട്ടെൻ്റെ അമ്മേനെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് എൻ്റെ അമ്മ അവിടെ ഇരിക്കുമ്പോൾ എനിക്കെൻ്റെ അമ്മേനെ വരയ്ക്കണം ഞാനൊരു അത്യാവശ്യം പടം വരയ്ക്കുന്നൊരാളാണ് അപ്പം എനിക്കെൻ്റെ അമ്മേനെ വരയ്ക്കണമെന്നൊന്ന് എനിക്ക് തോന്നി അപ്പം ഞാനവരോട് പറഞ്ഞു അവിടിരിക്ക് ഞാനൊന്ന് വരച്ച് നോക്കട്ടേയെന്ന് പറഞ്ഞു ഞാൻ വരയ്ക്കാൻ കുറേ ശ്രമിച്ചു അത്ര പെർഫെക്റ്റായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ വരച്ചത് പിന്നെ കണ്ണ് വരയ്ക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് അതിപ്പം എന്താ പറയുക ഇപ്പം ഒരു ഒരാളെ നേരിട്ട് വരയ്ക്കുമ്പോൾ അതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ടാ ഇപ്പം കാർട്ടൂണൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അതിപ്പം നമുക്ക് ഈസിയായിട്ട് വരയ്ക്കാം അതുപോലെത്തന്നെ നമ്മളീ ഫോണിലൊക്കെ കണ്ടു വരയ്ക്കുന്നതൊക്കെ നോർമ്മലി എങ്ങനെ വേണേലും നമുക്ക് അത് ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും പക്ഷേ ലൈവായിട്ട് വരയ്ക്കുന്നത് അത്യാവശ്യം നല്ല പാടാണ് കാരണം ആ കണ്ണ് മായ് വരച്ച് അത് മായ്ച്ച് മായ്ച്ച് മായ്ച്ച് അതൊരു വഴിയിലെത്തും അതുപോലെത്തന്നെ മൂക്കും എല്ലാം ഒരുപോലെ കറക്റ്റാക്കി എടുക്കാനൊരുപാട് ബുദ്ധിമുട്ടെടുക്കും ഇപ്പം നമ്മളൊരു കാർട്ടൂണിലൊരാളെ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെയൊരു ചെറിയ കണ്ണൊക്കെ ചെറുതായിപ്പോയെങ്കിൽ നമുക്കത് വല്യ കുഴപ്പമില്ലാണ്ട് നമുക്കടിപൊളി എന്നൊക്കെ പറയാം പക്ഷെ നമ്മളൊരാളെ വരയ്ക്കുമ്പോൾ അതിനു ചെറിയൊരു മിസ്റ്റേക്കുണ്ടെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്നറിയാൻ പറ്റും അതുകൊണ്ടുതന്നെ ഒരാളെ ലൈവായിട്ടു വരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവായിട്ടെന്നല്ല നമ്മളൊരാളെ വരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് നല്ല കുറേ നേരമെടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അടിപൊളിയാകും ഇത് ഞാൻ പെട്ടെന്ന് വരച്ചതുകൊണ്ട് അത്ര പെർഫെക്ട്ടായില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്കിഷ്ടപ്പെട്ടിരുന്നു ആ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാണ്ട് വരച്ചു